ഇടുക്കി ജില്ലയില് ലഭ്യമായ ചില പ്രാദേശിക ഗതാഗത സംവിധാനങ്ങളെന്തൊക്കെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ഇടുക്കിയില് ഇപ്പം നിലവിൽ ട്രെയിനോ എയർ എയർപോട്ടോ അങ്ങൻത്തെ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല അത് ഇപ്പോൾ ഇടുക്കി ജില്ലയില് ആള്കൾക്ക് ഭയങ്കരായിട്ടൊര് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് എയർപോട്ട് അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒര് റെയിൽവേ സ്റ്റേഷന് ഇടുക്കി ജില്ലയിലേക്ക് കൊണ്ടുവരുന്നത് നല്ലൊര് കാര്യവായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇത്രയും നല്ല ടൂറിസ്റ്റ് പ്ലേസ് ഇന്ത്യയില് വേറെ ഉണ്ടോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എൻ്റെ അറിവിലില്ല അതുകൊണ്ട് തന്നെ ആള്കൾക്ക് വന്ന് പോവാനൊക്കൊര് സൗകര്യമായിട്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് നല്ലതായിരിക്കും പിന്നെ ഉള്ളത് ഇപ്പം നിലവിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സുണ്ട് കാറ് ബൈക്ക് അങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ട് കെ എസ് ആർ ടി സി സർവീസസുണ്ട് പ്രൈവറ്റ് ബസ്സുണ്ട് അതൊക്കെയുള്ളു നിലവിൽ അല്ലാതെ വേറെ ഒര് തരത്തിലുള്ള ബസ്സുകളും ഗതാഗത സംവിധാനങ്ങളും ഇടുക്കീലേക്കില്ല ഒരു ഓവർ ബ്രിഡ്ജോ അങ്ങനത്തെ ഒര് കാര്യങ്ങളും ഇല്ല സാധാരണ നിരപ്പായ റോഡുകള് മാത്രമുള്ളു ഇപ്പം നമ്മള് വേറൊര് ജില്ലയിലേക്ക് നോക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതും ഓവർ ബ്രിഡ്ജ് മെട്രോ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പല ജില്ലകളിലുണ്ട് എന്തുകൊണ്ട് ഇടുക്കി ജില്ലയിലേക്ക് മാത്രം ഇത് കിട്ടുന്നില്ല എന്നുള്ളതൊര് ചോദ്യചിഹ്നനമായിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയിലേക്ക് ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ വരുന്നത് നല്ലതായിരിക്കും ടൈം കുട്ടികൾക്കാണേലും സ്കൂളിലൊക്കെ പോവാനായിട്ടാണേലും ബസ്സ് മാത്രേ ബസ്സ് സ്കൂൾ ബസ് മാത്രേ എന്തോ നിവർത്തിയുള്ളൂ അതായത് ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനാണേലും ബസ്സും ബൈക്കും കാറൊക്കെ അവരുടെ അവരുടെ സ്വന്തം ചെലവില് എട് പോവണ്ടവസ്ഥയാണ് അതെ സമയം ഒര് ട്രെയിനോ മെട്രോയോ അങ്ങനത്തെ എന്തെങ്കിലും സംവിധാനം ഇടുക്കി ജില്ലയിലേക്ക് വരികയാണെന്ന് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് ഭയങ്കര ഉപകാരമായിട്ട് തോന്നും ഒരാൾക്ക് മാത്രല്ല കേരളത്തിന് കേരളത്തില് മൊത്തമായിട്ട് നല്ലൊരുപകാരാവും കാരണം ടൂറിസ്റ്റ് ടൂറിസം വികസിക്കും അങ്ങനത്തെ കുറെ കാര്യങ്ങള് ഇടുക്കി ജില്ലക്ക് കിട്ടും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തകര് മുൻ മുൻഗണയിൽ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇടുക്കി ജില്ലക്ക് നല്ലൊര് നല്ലൊരു വരുമാനം ലഭിക്കുകയും അതിൽ നിന്ന് ഇടുക്കി ജില്ലയിലേക്ക് നല്ല രീതിയിൽ ടൂറിസം വികസിപ്പിച്ചെടുക്കുകയും ചെയ്യാനും പറ്റും അത് ഇതൊക്കെയാണ് മെയിനായിട്ട് ഉള്ള കാര്യങ്ങള് ഈ പറഞ്ഞ പോലെ വേറേ ഇടുക്കി ജില്ലേല് ലഭ്യമായ ഗതാഗത സംവിധാനങ്ങൾ എന്ന് പറയാൻ പാകത്തിന് ഓട്ടോറിക്ഷ ബൈക്ക് സ്കൂട്ടി അതൊക്കെ തന്നെയുള്ളൂ അല്ലാതെ വേറെ ഒര് തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒര് തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ഒര് വലിയ പോരായ്മയായിട്ടാണെനിക്ക് തോന്നുന്നത് പിന്നേ വേറെ ഒന്നും തന്നെ ഇല്ല